അതായത് ബജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നതെങ്കിൽ ഒന്നുകിൽ നമ്മൾ ബൈക്കോ അല്ലെങ്കിൽ സൈക്കിൾ റൈഡ് പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ലൈൻ ബസ്സുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബസ്സുകളോ ആ സ്ഥലം വരെ പോകും അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് കയറിയാൽ മതി അപ്പോൾ അധികം പൈസ ചിലവ് നമുക്ക് ഉണ്ടാവില്ല ലൈൻ ബസ്സുകളൊക്കെ ആ വഴിക്ക് പോകുന്നതാണ് കാരണം ബസ് സർവീസുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴോ ഉണ്ടാകും ആ വഴിക്ക് അപ്പോൾ പിന്നെ അത്ര പൈസ ചിലവുകൾ നമുക്ക് വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ സഹായം തേടാം ഓട്ടോറിക്ഷ ആകുമ്പോൾ വലിയ പൈസയില്ല എന്നാലും പൈസ ഉണ്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റോ പത്തു മിനിറ്റോ ഇരുപത് മിനിറ്റോ നടക്കേണ്ടിടത്ത് ആണെങ്കിൽ അറുപത് രൂപ കൊടുക്കണം അതേസമയത്ത് നടക്കുവാണേൽ കുഴപ്പമില്ല ബസ്സിനാണെങ്കിൽ നമുക്ക് പത്ത് പതിമൂന്ന് രൂപയെ ആവത്തുള്ളൂ ഈ എൺപത് രൂപ കൊടുത്തു നമ്മുൾ പോകുന്ന സ്ഥലത്ത് ബസ്സിന് വെറും പതിമൂന്ന് പതിനഞ്ച് രൂപയേ ആവുകയുള്ളൂ ലൈൻ ബസ്സിനൊക്കെ പിന്നെ നമുക്ക് ടാക്സികൾ ഒക്കെ വിളിക്കുമ്പോൾ ടാക്സിക്കൊക്കെ ഒത്തിരി പൈസ കൊടുക്കേണ്ടിവരും പക്ഷേ എല്ലാ വാഹനങ്ങളും നമുക്ക് ഉണ്ട് പരമ്പരാഗത വാഹനമായ നമ്മൾ കാളവണ്ടി ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ബസ് ഓട്ടോറിക്ഷ ടാക്സി അങ്ങനെയുള്ള വാഹനങ്ങൾ കൂടുതൽ പിന്നെ ഉപയോഗിക്കുന്നത് ആളുകൾ പൊതുവേ അതാണ് ഉപയോഗിക്കുന്നത് അത് അത് അതാകുമ്പോൾ എളുപ്പമാണ്